അല്ല ഹലോ ഇത് കാരുണ്യ ഹോസ്പിറ്റലല്ലേ ഞാനവിടത്തെ ഒരു റെഗുലർ പേഷ്യൻറ്റാണ് ഓക്കെ എൻ്റെ പേര് ആൻസി വയസ്സ് ഇരുപത്തി രണ്ടാണ് ആ ആ ത്രിപിൾ ത്രീ ഫോർ എയ്റ്റ് വൺ സിക്സ് നയൻ ടൂ

ഞാൻ ഡോക്ടർ ഭഗീരതനേയാ കാണുന്നത് ആ ഞ ഓ പിക്കല്ല ഞാനൊരു എൻക്വിറിക്ക് വേണ്ടി വിളിച്ചതായിരുന്നു ആ എനിക്കാണേലിപ്പോൾ ജസ്റ്റ് എ സി ഒന്നും പറ്റുന്നില്ല പെട്ടന്ന് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് കൂളാവുന്നു അതുപോലെ തന്നെ എനിക്ക് പെട്ടന്ന് പെട്ടന്നെനിക്ക് ചൂടാവേം ചെയ്യുന്നു ജസ്റ്റ് ചെറിയൊരു ചു എന്താ ഭയങ്കരമായിട്ട് വെയിലാവുമ്പോഴ്ത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും ഭയങ്കരമായിട്ട് വിയർക്കാൻ തുടങ്ങും അപ്പോൾ ഇതെന്തേലും അയേൺ ഡെഫിഷ്യൻസിൻ്റെ പ്രോബ്ളമാണോ എനിക്കിപ്പോൾ ഒരു ടൂ മന്ത്സായിട്ട് തുടങ്ങി ഞാനൊരു ത്രീ മന്ത്സിനു മുന്നേ ആയിരുന്നു വന്നത് ഇല്ല അന്ന് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ജസ്റ്റൊന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത് ഇനീം വരുന്നുണ്ടോന്നൊന്ന് നോക്കാനായിട്ട് ഇല്ല ഇല്ല ഓക്കെ ഓക്കെ ഇല്ല വേറെ പ്രശ്നോമൊന്നുമില്ല പിന്നെ ഞാൻ കാ നേരത്തെ വരുമ്പോൾ പീരീസി ഇറെഗുലറായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നോറ്മലായിട്ടുണ്ട് അതിനു പകരമായിട്ട് ഈ ഒരു പ്രശ്നം കൂടെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആ ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ സൈടെഫെക്സാണോന്നറിയത്തില്ല ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ആ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലെബിളാണോ

ആ ഓക്കെ ആ ശരിയെന്നാൽ താങ്ക് യൂ